ഒരു നീന്തൽ മീറ്റിലോ അല്ലെങ്കിൽ മത്സരത്തിലോ പങ്കെടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഗ്രാമപ്രദേശങ്ങളിൽ എൻ്റെ ചെറിയ സമയത്ത് ഓരോ ക്ലബ്ബുകളായിട്ടൊക്കെ നടത്തിയിട്ടുള്ള നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ആണെങ്കിൽ ഇത് തീർത്തും ഗ്രാമപ്രദേശമായതുകൊണ്ട് ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോളൊന്നും ഈ ഗ്രാമപ്രദേശങ്ങളിലത്ര ഈ അത്ര അധികം പ്രചാരത്തിലില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ ഇതൊരു നദിയാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ ജലത്താൽ ചുറ്റപ്പെട്ട ഒരേരിയ ആയിരുന്നതുകൊണ്ട് ഏറ്റവും കുട്ടികളുടെ എല്ലാവരുടേയു ഏറ്റവും വലിയ വിനോദവും ഏറ്റവും വലിയൊരു കായിക ഇതും നീന്തൽ തന്നെ ആയിരുന്നു ഒന്നുകിൽ കുളത്തിൽ ചാടി നീന്തുക അല്ലെങ്കിൽ നദിയിൽ ചാടി നീന്തുക എന്നിട്ട് എന്നിട്ട് ടീമായിട്ട് ഒന്ന് രണ്ടു പേർ കുളിക്കാൻ പോകുന്നവർ തമ്മിൽ ഒരു അറേഞ്ച്ഡൊന്നുമല്ലാതെ ഒരു ദൈനംദിന ജീവിതത്തിൽ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് നീന്തുക അല്ലെങ്കിൽ കുളത്തിൽ നീന്തിയൊരു മത്സരത്തിലേർപ്പെടുക തലേദിവസം തോൽപ്പിച്ചയാളിനെ പിറ്റേ ദിവസം ആ ആൾ തോറ്റ ആൾ പിന്നെ ജയിക്കുക അല്ലെങ്കിൽ ജയിക്കാൻ ആ ജയിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള മീറ്റുകളും മത്സരങ്ങളൊക്കെയായിട്ടേ പിന്നെ സ്കൂൾ ലെവലുകൾ ചെറിയ ചെറിയ നീന്തൽ മത്സരങ്ങളൊക്കെ നടക്കുകയും ആ മീറ്റിൽ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും രസകരമായ അനുഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നീന്തൽ മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അന്ന് നമ്മുടെ സാമ്പത്തികമായി പിന്നോക്കമായിരുന്നതൊക്കെക്കൊണ്ട് തന്നെ നമുക്ക് അതിനു വേണ്ട ഡ്രസ്സുകളോ നീന്തലിന് ആവശ്യമായ തരത്തിലു ള്ള ഇല്ലാതെ നമ്മൾ വീട്ടിൽ ഡെയ്ലി ഉപയോഗിക്കുന്ന ട്രൗസറ് നിക്കറൊക്കെ തന്നെ ഇട്ടുകൊണ്ട് തന്നെ നീന്തുകയും അത് പല കേസുകളിലൊക്കെ ബട്ടൺസ് പൊട്ടി പോവുകയും അല്ലെങ്കിൽ അതും ആ വെള്ളം അതു കൂടുതൽ പിടിച്ചതുകൊണ്ട് നമുക്ക് സ്പീഡിൽ നീന്താൻ പറ്റാതുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതു കഴിഞ്ഞ് പിന്നെ സ്കൂള് കഴിഞ്ഞ് കോളേജ് ലെവൽ പോയി കോളജ് ലെവലിലും ഡിസ്ട്രിക്റ്റ് ലെവലുകളിലൊക്കെ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുക്കയും ചിലതിൽ മത്സരങ്ങളിലൊക്കെ ജയിക്കാനും ചിലതിൽ പങ്കെടുക്കുക മാത്രം ചെയ്ത് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സുഹൃത്തുക്കളുമായിട്ട് പിന്നെ വിനോദത്തിനായിട്ട് നീന്തൽ അത് ഒരു ഡേ ടു ഡേ ബേസിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ നീന്തൽ എന്നു പറയുന്ന നമ്മുടെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഗ്രാമപ്രദേശമായതുകൊണ്ടും ജലത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ടും രാവിലെ എണീറ്റ് നമ്മൾ നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് നമ്മൾ നദിയെ അല്ലെങ്കിൽ വെള്ളത്തിനെ വെള്ളത്തിനെ നദിയെയാണ് ആശ്രയിക്കാറുള്ളത് അവിടെ നിന്ന് നമ്മൾ പല്ലു തേച്ച് മുഖം കഴുകി നീന്തുക നീന്തുമ്പം ചിലപ്പം നമ്മൾ ഒറ്റയ്ക്കല്ലായിരിക്കും നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരുമായിട്ട് നീന്തുകയും കുളിക്കുകയും അല്ലെങ്കിൽ അവിടെ കളിക്കുകയും അങ്ങനെ ഒരോരു വിനോദത്തിനായിട്ട് അത് ചെയ്യുന്നൊരു രീതി സ്ഥിരമായിട്ടുണ്ട് ഇന്നും ഇപ്പോഴും നമ്മൾ ഭൂരിഭാഗം ദിവസങ്ങളിലും കുളിക്കുന്നത് ആറ്റിൽ തന്നെയാണ് അന്നേരം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരഞ്ച് മിനിറ്റ് നീന്തുകയെന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തയൊരു കാര്യങ്ങളാണ് തുണിയലക്കാനാണെങ്കിലും നീന്താനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് നദി ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നീന്തൽ നമുക്ക് ജീവിതത്തിലൊഴിച്ച് കൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് പിന്നെ ഇവിടെ നമ്മൾ വള്ളം കളികളികളൊക്ക നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ വള്ളംകളി തുടക്കം മുതൽ അവസാനം വരെ മുഴുവൻ സമയത്തും വെള്ളത്തിലായിരിക്കും അപ്പം അത് നീന്തിത്തന്നെ നീന്തിത്തുടിച്ച് തന്നെയാണ് നമ്മൾ ഭൂരിഭാഗവും ഒരു വിനോദമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ആചാരം വള്ളംകളി കാണായിട്ട് നമ്മൾ വെള്ളത്തിൽ നീന്തി നടന്ന് തന്നെയാണ് നമ്മൾ വള്ളംകളി കാണാറുള്ളത് അപ്പോൾ നീന്തൽ ഒരു ഏറ്റവും നല്ല വിനോദവും ഏറ്റവും നല്ലൊരു ആരോഗ്യത്തിന് പറ്റിയൊരു ഒരു വ്യായമവും കൂടിയാണപ്പം സുഹൃത്തുക്കൾ കൂടിയും അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരങ്ങൾ കൂടിയൊക്കെ തന്നെയാണെങ്കിലും ഒരു വിനോദത്തിനാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരുംകൂടി ഒന്നിക്കുന്ന സമയങ്ങളിളെല്ലാം ആറ്റിലിറങ്ങി നീന്തി ഞങ്ങൾ സന്തോഷിക്കാറുള്ളൂ പിന്നെ പൊതുവെ ആൾക്കാർ ഗ്രാമപ്രദേശങ്ങൾ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ അവരുടെ സാമർത്ഥ്യം കാണിക്കാനായിട്ട് ആറ്റിൽ ചാടുകയും അവിടെ നീന്തുകയും നീന്തൽ അവരുടെ സാമർത്ഥ്യം അല്ലെങ്കിൽ അവരുടെ കഴിവിനെ മികവിനെ പ്രകടിപ്പിക്കുക എന്നുള്ളതൊരു ഒരു ഒരു എല്ലാവരിലും അല്ലെങ്കിൽ ഈ ഗ്രാമപ്രദേശത്ത് ജലത്താൽ ചുറ്റപ്പെട്ട കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാവരിലും ഉള്ള ഒരു ഒരു ഒരു ഒരു ഒരു രീതി അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് അപ്പം വിനോദത്തിനായിട്ടും അല്ലാതെയും മീറ്റിലും മത്സരങ്ങളിലുമൊക്കെ നീന്തിയിട്ടുണ്ട് ചെറുപ്പം മുതലേ അഞ്ചു വയസ്സ് മുതലേ നീന്താൻ പഠിച്ചു അന്നു മുതൽ നീന്തിയിട്ടുണ്ട്